ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്നുവെച്ചാല് കാർഷിക ഇതിലേക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും യങ്ങ് ജനറേഷൻ ആൾക്കാര് ഇപ്പോഴും ഇറങ്ങാറില്ല ചിലര് ഒരുപാട് പഠിച്ചുകഴിഞ്ഞിട്ടും ഈവൻ ബാച്ചിലേഴ്സൊക്കെ പഠിച്ചുകഴിഞ്ഞിട്ടും ചിലര് അഗ്രികൾച്ചർ ആ ഒരു ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട് അവർക്ക് ഇൻട്രസ്റ്റുണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് അതിൽ അവർക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് മേ ബി അവരുടെ എന്താണ് പറയുന്നത് ഒന്നുകില് അവരുടെ പപ്പ അല്ലെങ്കില് അവരുടെ മുൻകാല കസിൻസ് അങ്ങനെയുള്ള ആൾക്കാര് അല്ലെങ്കില് വല്യപ്പൻ അങ്ങനെയുള്ള ആൾക്കാര് ആ ഒരു അഗ്രിക്കൾച്ചറിലൂടെ ജീവിച്ചുവന്ന ആൾക്കാരായിരിക്കാം ഒന്നുകില് അവരുടെ മക്കളായിരിക്കാം ചിലപ്പോള് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കും അവര് ചിലപ്പം ഇതിലേക്ക് വരുന്നത് പക്ഷെ ഇപ്പോഴത്തെ കൂടുതലും നോക്കുമ്പോൾ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും വൈറ്റ് കോളർ ജോബ്സാണ് ചെയ്യുന്നത് ആരും ഇങ്ങനത്തെ ജോബ്സ് നമ്മുടെ കേരളത്തിലെ ആരും ഇപ്പം കഴിവതും ചെയ്യാറില്ല അത് ഇപ്പം കുറച്ച് പേര് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ചെയ്താൽ തന്നെ ഈ വളങ്ങള് അല്ലെങ്കില് അങ്ങനെയുള്ള സംഭവങ്ങള് നമ്മള് മേടിച്ചുവെച്ച് നമ്മളിപ്പം ഒരു കാർഷികരീതിയിൽ നമ്മള് തൈ വിത്തുകളും അങ്ങനെയുള്ള സംഭവങ്ങളും മേടിച്ചുകൊണ്ടുവെച്ച് അത് വന്നുകഴിഞ്ഞാല് തന്നെ അത് ഭയങ്കരമായിട്ടും ഒന്നുകില് മഴ കാരണം നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ മൃഗങ്ങള് പന്നി പട്ടി അങ്ങനെയുള്ള മൃഗങ്ങള് കാരണം അത് നശിച്ചുപോകും അല്ലെങ്കില് ഈച്ചകള് അങ്ങനെയുള്ള ഇത് കാരണം നശിച്ചുപോകും അപ്പോള് അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മളൊരു വർഷം അല്ലെങ്കിലൊരു ആറ് മാസത്തേക്ക് നമ്മളിത് ചെയ്തുകഴിഞ്ഞിട്ട് നമുക്കൊന്നും അതിൻ്റെ ഫലമില്ലാതെ വരുമ്പോൾ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടാണ് നേരിടുന്നതല്ലേ നമ്മളിപ്പോള് ഒരു ലക്ഷം രൂപ മുടക്കി നമ്മള് സാധനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലക്ഷം രൂപയുടെ നഷ്ടം വന്നുകഴിഞ്ഞാല് നമ്മൾ പിന്നെ വീണ്ടും ആ സംഭവങ്ങള് നമ്മളിടില്ല പിന്നെ അതുമാത്രമല്ല എൻ്റെ ഒരു നിഗമനം ഇതുവെച്ച് കാർഷിക ഇതിലേക്ക് അധികം സ്കീംസ് ഇപ്പം അധികമില്ലെന്ന് തോന്നുന്നു പക്ഷെ അല്ലെങ്കില്പ്പോലും ഇപ്പം പി എം കിസാൻ മോദി സ്കീം അതുണ്ട് രണ്ടായിരം രൂപ വെച്ച് ഒരു വർഷത്തിൽ ആറായിരം രൂപ കർഷകർക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ അതുകൂടാതെ ഉദ്യാൻ ഉദ്യാനി എന്നുപറഞ്ഞ ഒരു സ്കീമുണ്ട് അത് ഓരോരോ രാജ്യത്ത് കേരളത്തിലാണെങ്കില് ഇപ്പം കിസാൻ മോദി സ്കീം മുംബൈയിലാണെങ്കില് അത് വേറെ സ്കീം അങ്ങനെയോരോ സ്കീമുണ്ട് പക്ഷേ അത് അത് നമുക്ക് ഹൺഡ്രഡ് പെഴ്സെന്റ് നമുക്ക് പറയാൻ പറ്റില്ല ഫിനാൻഷ്യലി വേണ്ട ആൾക്കാർക്കാണ് ഈ സ്കീം കിട്ടുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ളവർക്കായിരിക്കും കൂടുതലും എനിക്ക് തോന്നുന്നു ഈ സ്കീംസ് കിട്ടുന്നത് അപ്പം നമുക്ക് ഇപ്പോഴത്തെക്കാലത്ത് കാർഷിക ഇതിൽ നിന്നിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ലത് നല്ലത് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു പോസിറ്റീവ് കാര്യമെന്താണെന്ന് പറഞ്ഞാല് നമ്മള് തന്നെ നമ്മുടെ വിത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മള് തന്നെ അത് നമ്മുടെ പറമ്പിൽ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത് നല്ലതായിരിക്കും കെമിക്കലും അങ്ങനെയൊന്നും ചേർക്കാത്ത ഫലങ്ങളും അല്ലെങ്കില് ഫ്രൂട്ട്സ് അല്ലെങ്കില് വെജിറ്റബിൾസ് എന്തുവേണമെങ്കിലും കിട്ടും ആരോഗ്യം നമ്മുടെ ഹെൽത്ത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെയൊരു ഇത്